ഞാൻ ക്രിസ്ത്യാനിയാണ് ഞങ്ങളുടെ ആഘോഷങ്ങളെന്ന് പറഞ്ഞത് ഈസ്റ്ററ് ക്രിസ്സ്മസ്സ് ഒക്കെയാണ് പിന്നെ പള്ളിയിൽ ആഘോഷ പെരുന്നാളുകളൊക്കെയുണ്ട് പിന്നെ ക്രിസ്സ്മസൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് നോയിമ്പെടുത്ത് ഞങ്ങൾ ഇരുപത്തഞ്ചാമത്തെ ദിവസം തലേന്ന് പള്ളികളിലൊക്കെ പോയി പിന്നെ അന്ന് പിറവി തിരുന്നാളിനോടനുബന്ധിച്ച് കരോൾ ഗാനങ്ങൾ ആയിട്ട് ആൾക്കാർ വരാറുണ്ട് അതു കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കേക്ക് മുറിച്ച് നല്ല രീതിയിൽ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു പിന്നെ ഈസ്റ്ററാണെങ്കിലും അതും ഇതുപോലെ നോയിമ്പൊക്കെ എടുത്ത് ദുഃഖ പെസഹ വ്യാഴം തൊട്ട് ദുഃഖ വെള്ളി ദുഃഖ ശനി ഒക്കെ നല്ല രീതിയിൽ ആചരിച്ച് ഈസ്റ്ററ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമാകുന്നു പിന്നെ ഞങ്ങളുടെ അടുത്ത് പെരുന്നാൾ പള്ളി പെരുന്നാളുകളൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാം ആറാട്ടു വഴിയിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ അന്തോണിസ്സ് പുണ്യാളച്ഛൻ്റെ പെരുന്നാളുണ്ട് പിന്നെ ലത്തീം പള്ളിയിൽ അവർ ലേഡി ഓഫ് ചർച്ചിൻ്റെ തിരുന്നാൾ ജൂലൈയിൽ നടക്കുന്നുണ്ട് പിന്നെ പൂങ്കാവള്ളി വിശുദ്ധ ഇതാണ് അതും ദുഃഖ വെള്ളി ആഴ്ച്ച പല സ്ഥലങ്ങളിൽ വന്ന് ആൾക്കാർ എത്തിച്ചേർന്ന് പെസഹ വ്യാഴാഴ്ച്ച വിളക്കിടിയിച്ചിലും ദുഃഖ വെള്ളിയാഴ്ച്ച കഞ്ഞി കുടിച്ചും ഒക്കെയാണ് ഞങ്ങൾ ഇത് ഈസ്റ്റർ ആഘോഷിക്കുന്നത് വിശുദ്ധ വാരം ആഘോഷിച്ചു പോകുന്നത് പിന്നെ മറ്റുള്ള ആൾക്കാർ ആ ക്രൈസ്തവരുടെ എന്നു പറഞ്ഞത് അവർ വിഷു ഓണം അതും നല്ല രീതി തന്നെ നമ്മളും ആഘോഷിക്കാറുണ്ട് നമ്മളെ പരിസരത്തുള്ളവരും ആഘോഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട് വിഷുവിന് കൈനീട്ടം കൊണ്ടുവരികയും വിഷുക്കൈനീട്ടം തലേന്ന് കൊണ്ടു വന്ന് പിള്ളാർ വെക്കുകയൊക്കെ ചെയ്യാറുണ്ട് കണി വെക്കാറുണ്ട് പിന്നെ ഓണത്തിനും പിന്നെ ക്രൈസ്തവരുടെ ആണെങ്കിൽപ്പോലും ഞങ്ങളും ആ നമ്മളും ആഘോഷിക്കാറുണ്ടല്ലോ ഓണം അതും സദ്യ ഒരുക്കി ആഘോഷിക്കാറുണ്ട്